ഞങ്ങളുടെ പ്രദേശത്ത് ഏറ്റോം കൂടുതൽ കപ്പേം മീൻ കറിയാണ് പോകാറുള്ളത് കപ്പ പാചകം ചെയ്യുന്ന രീതി കപ്പ കൊത്തി ഇടുക അതിന് ശേഷം നമ്മൾ തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടി പച്ചമുളക് കുഞ്ഞുള്ളി എല്ലാം കൂടെ ചായ്ച്ച് വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ അത് പാചകം ചെയ്യുന്നത് അത് നന്നായിട്ട് കുഴച്ച് കരിയാപ്പിലയും കൂടിട്ട് വാങ്ങാ അത് കപ്പ ഇതാകും അതിന് ശേഷം നമ്മൾ മീൻ കറി വെക്കാൻ പോവാണ് മീൻ കറി വെക്കുന്നത് എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്കിപ്പം അവിടേറ്റവും കൂടുതൽ വരുന്നത് ആറ്റ് മീനാണ് ആറ്റ് മീനെന്ന് പറഞ്ഞാൽ പരാലുണ്ട് കാരിയുണ്ട് അപ്പോൾ ഞാനിപ്പം വരാലാണിപ്പം ഞാൻ കറി വെക്കാനായിട്ട് വാരിക്ക്ന്നെ അപ്പമത് അതിന് വേണ്ടത് നമ്മൾ മീന് നല്ല ക്ലീയറായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം അതിന് വേണ്ടത് വെളുത്തുള്ളീം ഇഞ്ചിയും എല്ലാം നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം കരിയാപ്പിലേം എല്ലാം അതിനകത്ത് മാറ്റിവെക്കാൻ എന്നതിന്റെ ശേഷം നമ്മളടുപ്പേൽ വെച്ചു ചട്ടി അടുപ്പിലോട്ട് വെക്കാൻ അതിന് ശേഷം നമ്മൾ അത് ചൂടായതിന് ശേഷം നമുക്ക് മെന്നാ എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക്കിട്ട് കൊടുക്കുക അതിന് ശേഷം പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ മുളക് പൊടിയും എന്നാൽ മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് എണ്ണക്കകത്തു കുഴച്ച് വെച്ചതിന് ശേഷം വേണം ഇത് മാറ്റിവെക്കാൻ എന്നതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിക്കും പൊട്ടിയതിന് ശേഷം പിന്നെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനുള്ള ഐറ്റംസെല്ലാം എണ്ണക്കകത്തിട്ട് മൂപ്പിക്കുക മൂപ്പിച്ചതിന് ശേഷം ഈ എണ്ണയിൽ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപൊടിയും കൂടെ എണ്ണക്കകത്ത് കുഴച്ച് വെച്ചിരിക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം വരണ്ടിരിക്കിന്നതിൻറ്റത്തോട്ട് നമ്മളങ്ങോട്ടിട്ട് കൊടുക്കുക അതിന്ശേഷം ഈ മുളക്പൊടി നന്നായിട്ട് മൂപ്പിക്ക് അതിന് ശേഷം നമുക്ക് വാളം പുളീടെ കൊടം പുളീടെ വെള്ളവും കൂടെ ചേർ കൊടം പുളിയിട്ട് നന്നായിട്ടത് അടുപ്പത്ത് വെച്ച് മീനും ഇതെല്ലാം ഒഴിച്ച് ഒഴിച്ചതിന്റെ അകത്ത് ഇട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മളത് വാങ്ങാ നന്നായിട്ട് തിളച്ച് വറ്റണം വറ്റുവാന്ന് വെച്ചാൽ ഒരു ചെറുത് നമ്മൾ കപ്പയല്ലേ നിറയെ അതിൻ്റെ ചാറോടൊക്കെയിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അത് റെഡിയാക്കിയെടുക്കുക അന്നേരം കപ്പേം മീനും റെഡിയാവും അതിന് ശേഷം ഞങ്ങടവിടെ പിന്നെയുള്ള കാരിയുണ്ട് ആറ്റ് മീൻ ആ കാരിയെന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് ഇച്ചിരി പണിയാണത് വെട്ടി തേച്ച് അത് എട്ക്കാച്ചാൽ പൊളിച്ചാണത് നമ്മളത് സാധാരണയെടുക്കുക ഞങ്ങളുടെ പ്രദേശത്ത് സാധാരണ അന്നേരം അത് നമ്മളതു പാചകം ചെയ്യുന്നത് വെട്ടി വരഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത് വഴഞ്ഞതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കരിയാപ്പിലേം കൂടെ അരച്ച് ഉപ്പ്ങ്കോടേം ചേർത്ത് അതേ പിടി പിടിച്ചതിന് ശേഷം ചട്ടി അടുപ്പേ വെക്കാ അത് ചൂടായതിന് ശേഷമേ കാരിയിടാവൊള്ളു കാരിയിട്ട് നന്നായിട്ട് വറക്കണം വറക്ക്വാന്ന്ച്ചാൽ ചട്ടി ചൂടായില്ലെങ്കിൽ കാരിതിരിച്ച് നമുക്ക് കിട്ടത്തില്ല അതിനാണ് ചട്ടി നമ്മൾ ചൂടായതിന് ശേഷം എണ്ണയൊഴി തിളച്ചതിന് ശേഷം നമ്മളത് ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്നമ്മ്ക്ക് മൂത്ത് മറ് മറിച്ചിടാന് പറ്റും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പതും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാരി ഫ്രൈയ്യായിട്ട് കിട്ടും അതിന് ശേഷം ഞങ്ങളുടെ സാധാരണ ഞങ്ങൾക്ക് ഇപ്പം വരുന്നത് ഈയിടെ എൻ്റെ മകാടെ സൺഡേ സ്കൂളധ്യാപകർടെ ഒരു മീറ്റിങ്ങിണ്ടായിരുന്നു എൻ്റെ വീട്ടീവെച്ച് അന്നേരം ഞങ്ങളവിടെ ഞാനവർക്ക് കൊടുത്തത് കപ്പയും മീൻ കറിയും കോഴി പിന്നെ പാലപ്പവും കൂടാണ് കൊടുത്തത് എല്ലാവർക്കും ഭയങ്കരിത് എന്നാച്ചാൽ അന്നേരം ഞാൻ ചെയ്തത് പാലപ്പമാണ് ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞു നാടൻ പാലപ്പം അതായത് കള്ളൊഴിച്ച് പച്ചരിയും വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം തേങ്ങാപ്പീരായും ഈ കള്ള് നാടൻ കള്ളോടെയിട്ട് അരച്ച് വെച്ചതിന് ശേഷം നമ്മളത് കുതിർന്ന പാലപ്പമുണ്ടാക്കിയും കൊടുത്ത് പിന്നെ കോഴിക്കറി ആടെവാട്ടി ഞങ്ങളവിടെ ചെയ്തു അതായത്